പക്ഷി നിരീക്ഷണത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണു ഞാൻ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നോക്കാറുണ്ട് അവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് വിവിധ തരങ്ങളായ പക്ഷികളുടെ ശബ്ദങ്ങൾ നല്ല രീതിക്ക് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ പക്ഷികളയും അവയെ സംബന്ധിച്ച കാര്യങ്ങളെയും അന്ധവിശ്വാസവുമായി കൂട്ടിയിണക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചില പഴമക്കാർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചുപോവാറുണ്ട് കാക്ക വന്നു നമ്മുടെ വീടിനു പരിസരത്തുനിന്നു കരഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറുക്കിക്കഴിഞ്ഞാൽ അതു വിരുന്നുകാര് വരാനുള്ളതിൻ്റെ സൂചനയാണെന്ന് അതുപോലെ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന പക്ഷി വീടിനു പരിസരത്തുനിന്ന് കരഞ്ഞുകഴിഞ്ഞാൽ അതു സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സൂചനയാണെന്നും പറയുന്നതു കേട്ടിട്ടുണ്ട്